കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്കും അതിനെ മേടിച്ചു കുഞ്ഞ് കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളെ ഗിരിരാജ കോഴിക്കുഞ്ഞുങ്ങളെ മേടിച്ചു കൊണ്ടു വന്നു കൂട്ടിലാക്കി അതിന് ചെറിയ കട കളിയുന്ന ചെറിയ ഭക്ഷണം അതിൻ്റെ പൊടി മേടിച്ചു അതിന് കൊടുക്കുന്നു പിന്നെ മരുന്ന് മഞ്ഞ വെള്ളം കലക്കി കൊടുക്കുന്നു പിന്നെ മൃഗാശുപത്രിയിൽ പോയി പിന്നെ അത് കോഴിക്ക് കുഞ്ഞുങ്ങൾക്കുള്ള പിന്നെ മരുന്നും വിറ്റാമിനുകളും ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വച്ചു കൊടുക്കണം പിന്നെ പിന്നെ അവർക്ക് തുമ്മലും ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കണം മഴയൊന്നും നനയാൻ പാടില്ല ഒരു മൂന്ന് നാല് മാസം വരെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചാലെ കോഴിക്കുഞ്ഞ് ആറ് മാസം ആവുമ്പോൾ മുതൽ നല്ലപലെ ആഹാരൊക്കെ കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവർ ആറ് മാസം മുതൽ നല്ല പോലെ മുട്ടയിടാൻ തുടങ്ങും മുട്ട കോഴികൾ മുട്ടയിടാൻ തുടങ്ങും ഒരു ഒരു വർഷമൊക്കെ ആവുമ്പോഴത്തേക്കും പൂവൻ കോഴി പൂവൻ കോഴികളാണെങ്കിൽ അവരെ നമ്മൾക്ക് വിൽക്കാനുള്ളത് ഇത് ആവും ഇറച്ചി ഒരു മൂന്നും നാലും കിലോ ഒക്കെ ആകും ഓരോ കോഴികളും അതുപോലെ നമ്മൾ ആഹാരമൊക്കെ ഓരോ ശ്രദ്ധിക്കുകയും മഴ നനയാാതെ നോക്കി പിന്നെ ഒരു ആറു മാസം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ല നമ്മൾക്ക് വെളിയിൽ അഴിച്ചു വിടാം അഴിച്ചു വിട്ടിട്ട് വെള്ളമൊക്കെ വച്ചു കൊടുക്കാം രാവിലെയും വൈകിട്ടുമൊക്കെ എപ്പോഴും അവർക്ക് വെള്ളം വേണം വെള്ളമൊക്കെ വച്ചു കൊടുക്കണം പിന്നെ വെളിയിലൊക്കെ അവർ പോയിട്ട് ആറ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും കൂട്ടിലായി വന്നു കയറും അന്നേരം നമ്മൾ വെള്ളമൊക്കെ വച്ചു കൊടുക്കണം പിന്നെ ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും അവർക്ക് മരുന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ അത് തുമ്മലക്കെ ഉണ്ടായി പെട്ടന്ന് മഴയൊക്കെ നനയുകയാണെങ്കിൽ ചത്തു പോവും സമയം നാടൻ വഴിയാണെങ്കിൽ ഒരു പ്രശ്നം ഇല്ല നമ്മൾക്ക് അട വച്ചു വിരിഞ്ഞു അവർക്ക് തീറ്റ ഇട്ട് കൊടുത്ത് അവരെ വെളിയിൽ ഇറക്കി കുഞ്ഞുങ്ങളാണെങ്കിലും വെളിയിലിറക്കി വിടുന്നതിന് ഒരു പ്രശ്നവും ഇല്ല കോഴി വളർത്തൽ ഒരു ഹോബിയാണ് അവർക്ക് രാവിലെ തീറ്റ കൊടുത്ത് അഴിച്ചു വിടുന്നു പിന്നെ അത് കഴിഞ്ഞു വൈകുന്നേരം നാടൻകോഴികൾ ആണെങ്കിൽ തിരിച്ചു കയറി കയറി ആറ് മണിയാകുമ്പോൾ തന്നെ അവർ കൂട്ടിൽ കയറുന്ന പ്രശ്നം ഇടന്ന് കാക്ക കാക്ക കൊണ്ടുപോകാതെ കൂട്ടിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധക്കണം ഇല്ലെങ്കിൽ കാക്ക എപ്പോഴും ഇങ്ങനെ നോക്കി ഇരിക്കുവാണ് മുട്ട ഇടുന്നത് നോക്കി കോഴികളെ വരുന്നത് നോക്കി അങ്ങനെ ഇരിക്കുക അങ്ങനെ കോഴി നല്ല ഒരു ആദായമാണ് നമ്മൾ ശ്രദ്ധയോടെ പരിപാലിക്കുകയൊക്കെ ആണെങ്കിൽ പിന്നെ ആട് ആടുണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു അവരെ പശുവിനാണെങ്കിലും പാൽ കറന്നു സൊസൈറ്റിയിൽ കൊണ്ട് വീടുകളിലൊക്കെ ആണെങ്കിലും ആൾക്കാർ വന്നു മേടിച്ചു കൊണ്ടിരിക്കും

അങ്ങനെ പാൽ സൊസൈറ്റി കൊണ്ടു പോകേണ്ടത് കൂടുതൽ ഉണ്ടെങ്കിൽ സൊസൈറ്റിയിൽ കൊടുക്കുക ഇല്ലെങ്കിൽ വീടുകളിൽ ആൾക്കാർ വന്നു മേടിക്കും ഇപ്പം ഒരു ലിറ്ററ് പാലിന് തന്നെ അമ്പത്തി നാല് രൂപയാണ് വില പാല് ഇപ്പം പശു വളർത്തുകള് കൊറവാണ് ഇപ്പ എല്ലാരും സൊസൈറ്റിയില് അതുപോലന്നെ ആട് കൃഷി ചെയ്യുന്ന നല്ലത് ഞാനരുപാട് ആടുകളെ വളർത്തിയിട്ടുണ്ട് വളർത്തുന്നുണ്ടായിരുന്നു ഇപ്പം ഇട കൊണ്ട് ഈ ഇട കൊണ്ട് ആടുകളൊന്നും ഇല്ല എന്നാലും ആ പിന്നെ നല്ല ഇനത്തിലുള്ള കോഴികള നമുക്ക് ഒരുവിധം കാണുമ്പോൾ തന്നെ അറിയാം അത് നോക്കുമ്പോഴേ അറിയാം ഗിരിരാജൻ്റെ കോഴികളെ കൊണ്ട് വന്നു കഴിയുമ്പോഴത്തേന് അതിങ്ങളെ അഴിച്ചു വിട്ടിട്ട് നോക്കുമ്പോഴത്തെന് അറിയാം നല്ല ഇനം ആണോ അതോ ഇപ്പോൾ കിട്ടുന്ന കോഴികളാണെങ്കിലും ഒറജിനലാണോ അല്ലാത്തതാണോ എന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കോഴികളെ കാണുമ്പഴേ അറിയാം അതുങ്ങൾ രക്ഷപ്പെടും തൂങ്ങി ഒരുമാതിരിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴൊക്കെ അറിയാം അത് ശരിയാകില്ല എന്നുള്ള നമുക്ക് അത് പ്രത്യകിച്ചു കോഴികളെ മേടിക്കുമ്പോഴത്തേക്കും കോഴി കുഞ്ഞുങ്ങളെ മേടിക്കുമ്പോൾ അവർ നമ്മൾ മേടിച്ചിട്ട് ഇങ്ങനെ തറയിൽ വിട്ടു നോക്കുമ്പോൾ അറിയാം അവർ പിന്നെ അവർക്ക് ആരോഗ്യമുണ്ടോ അത് ശരിയാകുമോ എന്നുള്ളത് മനസ്സിലാക്കാം നല്ല ഒരു നല്ല നല്ല രീതിയിൽ നമ്മൾ പരിപാലിച്ചു കൊണ്ടൂ പോകാമെങ്കിൽ കോഴി കോഴി വളർത്തൽ നമുക്ക് ഒരു നല്ലൊരു ആദായമാണ് പിന്നെ ഇത് തീറ്റ മേടിച്ചു തന്നെ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇടയ്ക്ക് ഇട ഇച്ചിരി ഒരു മൂന്ന് മാസം വരെ നമ്മൾ മേടിക്കണം അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അരിയും ഗതമ്പോക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് കോതമ്പായാലും ഒന്ന് തിളപ്പിച്ചു അരി ആയാലും ഒന്ന് തിളപ്പിച്ചു ഒക്കെ കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ വെള്ളം മഞ്ഞ വെള്ളം നമ്മുടെ നാടൻ മഞ്ഞ ഇട്ട് വെള്ളം വെള്ള വെള്ളത്തിലിട്ട് കൊടുക്കണം വെള്ളത്തിൽ കലക്കി വെള്ളം കുടിക്കാൻ കൊടുക്കണം

പിന്നെ ഇടയ്ക്ക് കോഴികൾക്കായാലും വിരയ്ക്കുള്ള മരുന്നുകളുണ്ട് അ ആ മരുന്നൊക്കെ നമ്മൾ മൂന്ന് മാസം മൂന്ന് മാസം കടുമ്പോഴുത്തെനും കോഴിക്ക് മരുന്നുകൾ കൊടുക്കണം എങ്കിലേ അതിനോട് ഫലം ചെയ്യുകയുള്ളൂ